ഞാനൊരു മാസം മുന്നെ പീ എഫ് വായ്പ്പയ്ക്കായി അപേക്ഷിച്ചായിരുന്നു അതിൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ ഞാൻ ഈ പീ എഫ് ഒ പോർട്ടിൽ കയറിയേക്കുവാണ് ഇ ഇ ഈ പീ എഫ് ഒ പോർട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊത്തിരി കാര്യങ്ങളറിയാൻ പറ്റും നമ്മുടെ പി എഫ് വായ്പ്പ എന്തായി എവിടം വരെയായി എവിടം വരെ ആയി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചിലപ്പോൾ അറിയാൻ പറ്റും പിന്നെ മെയ്നായിട്ട് നമ്മുടെ ഡോക്കിമെൻ്റെല്ലാം കയ്യിലുണ്ടാവണം ഇ പീ എഫ് ഓ പോർട്ടീ ചെന്നപ്പോൾ അവരവിടെ ഉള്ള ആൾക്കാരെൻ്റെ യു എൻ എ നമ്പറും ആ റെഫെറെൻസ് നമ്പറെല്ലാം ചോദിച്ചു അവരെന്നെ ട്രാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ യു എൻ എ നമ്പറായ ഒന്ന് ഒന്ന് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് റഫറൻസ് നമ്പറായ പൂജ്യം പൂജ്യം പൂജ്യം ഒന്ന് നാല് അഞ്ച് ആറ് ഞാൻ അവർക്ക് നൽകി കൂടാതെ അവർ എന്നോട് മറ്റു വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഈ പി എഫ് ഒ പോർട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അവർ ട്രാക്ക് ചെയ്യുകയും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുതരുകയും ചെയ്തു ഇനീ ഉള്ള ക മുൻകാല കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യാമെന്നും എന്തൊക്കെ നടപടികൾ ചെയ്യണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നും ഇതിൽ നിന്നും എനിക്ക് എനിക്ക് മനസിലായി